ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പരസ്യം പ്രകടമായി കാണാവുന്നത് നമ്മുടെ ടെലിവിഷനുകളിലും മൊബൈൽ ഫോണുകളിലുമാണ് മൊബൈൽ ഫോണിൽ തന്നെ ഏത് ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിലെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിലേക്ക് നമുക്ക് ആഡ് കാണിച്ച് തരാറുണ്ട് മിക്കവാറും കാണിച്ച് തരുന്നതെല്ലാം ബ്യൂട്ടി പ്രൊഡക്റ്റ്സുകൾ അതുപോലെ തന്നെ ആ പല പഠനത്തിന് ആവശ്യമായിട്ടുള്ള ആഡുകൾ അതായത് ഇൻസ്റ്റിട്യൂഷനുകളുടെ പ്രൊമോഷനുകൾ കൂടുതലും ബ്യൂട്ടി പ്രൊഡക്റ്റ്സിൻ്റെ ആഡുകളാണ് സജീവമായിട്ട് കണ്ട് വരാറുള്ളത് ടെലിവിഷനിൽ ആയാലും അതുപോലെ തന്നെ ഫോണിലായാലും